ആ ചേച്ചി ആ ഇന്ന് എനിക്കൊരു പുതിയ പ്രൊഡക്ടിൻ്റെ എന്തോ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരിന്നില്ലെ ഞാൻ അതിനായിട്ട് വന്നതാണ്

ഇപ്പോ ഇരുപത്തെട്ട്

ഞാൻ പ്രൊജക്ട് ഒക്കെ എടുത്ത് ചെയ്യണതാണ് ഫ്രീലാൻസായിട്ട് ആ ആ

ആ ആ അത്രെ ഉള്ളൂ അത്രെ ഉള്ളൂ

ഓക്കേ

ഓക്കേ ആ ആ ഓക്കേ ഓക്കേ അപ്പോൾ ആ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ഓക്കേ നമ്മളിപ്പോൾ അത് ഫോമ് മറ്റേ ഇതിന് വേറ എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനത്തെ എന്തെങ്കിലും വേണോ അപ്പോൾ ഞാനിപ്പോഴിത് എടൂക്കണം പറഞ്ഞ് കഴിഞ്ഞാൽ

ആ ഓക്കേ അതിപ്പോൾ ഏത് ബാങ്ക് ആയാലും കുഴപ്പമില്ലല്ലോ ഓക്കേ ഓക്കേ അപ്പം ശരി ഏച്ചി ഞാൻ നാളെ സാധനങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എത്രയാണ് പൈസ കൊണ്ടുവരേണ്ടത് പൈസ എത്ര കൊണ്ടുവരേണ്ടത് ഓക്കേ ഓക്കേ ഏച്ചി ഓക്കേ ഏച്ചി